വരുന്നവർക്കു വയനാട് ജില്ല ഒരു കാണാനെന്തുകൊണ്ടും ഏറ്റവും നല്ലത് വയനാട് ജില്ലയാണ് കാടും മരങ്ങളും പച്ചപ്പും അങ്ങനെയൊക്കെയ ആയിട്ട് വയനാട് ജില്ലയാണ് ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ തന്നെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട് മാനന്തവാടിയാണെങ്കിലും മാനന്തവാടി വവ്വാൽ പാർക്ക് അതൊക്കെ എന്നുവച്ചുകഴിഞ്ഞാല് മുള കൊണ്ടുള്ളൊരു കൂമ്പാരമാണ് അവിടെ പോയി അതിനകത്തു ഫുള്ള് വവ്വാലൊക്കെ വന്നിരുന്ന് അങ്ങനെ അതിന്റെ ഉള്ളില് പാർക്ക് കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പഴശ്ശി കുടീരം പിന്നെ കണ്ടിരിക്കാനാണെങ്കില് അതായത് ട്രാവല് ചെയ്യാനാണെങ്കില് പറഞ്ഞ പോലെ തേയിലത്തോട്ടം അതിൻ്റെ ഇടയ്ക്ക് കയറിയൊക്കെ ഫോട്ടോ എടുക്കാം പുറത്തുനിന്നു വരുന്നവർക്ക് അതൊരു രസമായിരിക്കും ഏറ്റവും മനോഹരമായ ജില്ലയാണ് വയനാട് ഫുള് ഫോറസ്റ്റൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫോറസ്റ്റിന്റെ ഉള്ളില്കൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോവുകയാണെങ്കില് പല മൃഗങ്ങളെയും കാണാൻ പറ്റും കുറേ സ്കോപ്പുണ്ട് അങ്ങനെയാണെങ്കില് ആരും വന്നുകഴിഞ്ഞാൻ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാണ്ട് പോവുകയില്ല പിന്നെ പാർക്കുകളുണ്ട് തിയേറ്ററുകളുണ്ട് ടർഫുകള് എല്ലായിടത്തും പിന്നെ ടർഫ് അങ്ങനത്തെ ഇതിലൊക്കെ പൈസ വേണം അല്ലാണ്ട് വേറൊന്നിലും പണം വേണ്ട